പാലക്കാട് ജില്ലയിൽ ആരോഗ്യപരിപാലനരംഗത്ത് വളരെയധികം സേവനങ്ങൾ ലഭിക്കുന്നുണ്ട് ഓരോ പഞ്ചായത്തിലും ഓരോ ആശുപത്രികൾ ക്ലിനിക്കുകൾ ഫാർമസികൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ എന്നിവയെല്ലാമുണ്ട് കൂടാതെ ആയുർ ഗവണ്മെന്റിൻ്റെ ആയുർവേദ ഹോസ്പിറ്റലുകൾ അതേപോലെത്തന്നെ ഹോമിയോ ക്ലിനിക്കുകൾ എന്നിവയും ഓരോ പഞ്ചായത്തിലും ഉണ്ട് സ്വദേശികൾക്ക് അവ നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്നുണ്ട് സ്വദേശികൾ അവ എത്രത്തോളം സമീപിക്കുന്നതാണ് താങ്ങാ അതായത് ഇവ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഗവണ്മെന്റ് ആശുപത്രികളിലും ഹെൽത്ത് സെന്ററുകളിലുമാണ് പതിവായി പോകാറുള്ളത് അതേപോലെ ഗവണ്മെന്റ് ആശുപത്രിയിൽ നിന്ന് ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ ബി പി കൊളസ്ട്രോൾ തുടങ്ങിയവയ്ക്കെല്ലാം മരുന്നുകൾ ഫ്രീ ആയി കൊടുക്കുന്നു അതുമാത്രമല്ല അത് അനലൈസ് ചെയ്യാനും അത് ഷുഗറിൻ്റെ കണ്ടന്റ് എത്രത്തോളം എന്ന് അറിയുന്നതിനും ഉള്ള ലാബുകൾ അതെല്ലാം ഫ്രീ ആയിട്ടാണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് സർക്കാർ മെഡിക്കൽ കോളേജിൽ ജില്ലാ മെഡിക്കൽ ടി ബി സെന്റർ അഹല്യ പ്രമേഹ ആശുപതി അഹല്യ വിമൺ സെന്റ് ആശുപതിയും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു ആശുപതികളിലെല്ലാം മുമ്പത്തേത് പോലെയല്ല ഇപ്പോഴെല്ലാ ആശുപതികളിലും ഡോക്ടർമാരും നേഴ്സുമാരുടെയും സേവനം വളരെയധികം വൃത്തിയുള്ള ആശുപതിയും ചുറ്റുപാടുമെല്ലാം വളരെയധികം വൃത്തിയാക്കി വയ്ക്കുന്നു മുമ്പെല്ലാം മുമ്പ് കാലത്ത് ഹോസ്പിറ്റലുകളിൽ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നില്ല അതേസമയം ഇന്ന് എല്ലാ ഹോസ്പിറ്റലുകളിലും കിടത്തി ചികിത്സയും പ്രത്യേക ശ്രദ്ധയുമെല്ലാം നൽകുന്നുണ്ട് രോഗികൾക്ക് വലിയ വലിയ ഓപ്പറേഷൻ അതായത് ഹേർട്ട് ഓപ്പറേഷൻ പിന്നെ വൃക്ക വൃക്ക മാറ്റിവക്കല് ധൻ പ്രസവ ഡെലിവറി സമയത്ത് സിസേറിയൻ അങ്ങനെ എല്ലാ ഓപ്പറേഷനുകളും ഗവണ്മെന്റ് ആശുപത്രികളിൽ തന്നെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് അതെല്ലാം പാലക്കാട് ജില്ലയിലെ ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നു